ആ അതേലോ ആരായിരുന്നു ആ എന്താണ് വിളിച്ചത് ആ അതിനെന്താ ആ ഇല്ല ഇല്ല കുഴപ്പം ഇല്ല അതിനെന്താ അവൻ എന്താണ് അവനെ നമുക്ക് ചേർക്കാമല്ലോ അതിന് കുഴപ്പം ഇല്ല അ ആ ആഹ്

അയ്യോ അയ്യോ അങ്ങനെ ഒന്നും ഇല്ലന്നേ അവൻ മിടുക്കനല്ലേ അവൻ എല്ലാ കാര്യത്തിലും മിടുക്കനാവട്ടെ പഠിച്ചാൽ മാത്രം പോരല്ലൊ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടേ ആ അത് കുഴപ്പം ഇല്ല കേട്ടോ അവൻ പഠിച്ചോളും അത് സാരമില്ല നമുക്ക് ചേർക്കാം കേട്ടോ അവന് ഇഷ്ടമുള്ള ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അവൻ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലെ ക്ലാസിൽ ആ എന്തേലും പറഞ്ഞാൽ ഓടി വന്ന് ചെയ്യും ഓക്കെ നമുക്കവനെ പഠിപ്പിക്കാം ഞാൻ അത് ഓർത്തായിരുന്നു പറയണമെന്ന് ഞാൻ ഓർത്തായിരുന്നു അവനെ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് അവൻ മിടുക്കനാണ് ആ അവൻ ചെയ്തോളും ആം ആ ആ ആ അ രണ്ടും ആ അവൻ പാട്ട് നന്നായിട്ട് പാടും ഡാൻസ് നന്നായിട്ട് ചെയ്യും ഇപ്പം ഈ പറഞ്ഞത് പോലെ രണ്ടുംകൂടി ആകുമ്പോഴെത്തേക്കിന് സമയത്തിൻ്റെ ഒരു പ്രശ്നവും വരുവേ അന്നേരം അപ്പോൾ പിന്നേ രണ്ടും കൂടെ അവന് ഇഷ്ടമാണെങ്കിൽ രണ്ടും കൂടെ അവന് കൊടുക്കാമായിരുന്നു സമയം കറക്ട് ഇങ്ങനെ സമയം ഏതാണ്ട് സെയിം ടൈം ആണെന്ന് തോന്നുന്നു രണ്ടു പ്രോഗ്രാം രണ്ടും നടക്കുന്നത് നമ്മൾ സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ ഒരെണ്ണം കുഴപ്പം ഇല്ല ഒരു കുറച്ച് സമയം പക്ഷേ എങ്കിൽ നമുക്ക് പുറത്ത് ചെയ്യുന്ന അത്ര സമയം കിട്ടില്ല സ്കൂളിൽ ആകുമ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചേർത്തിട്ട് ഒരെണ്ണം പുറത്ത് അവന് ഏറ്റവും ഇഷ്ടമുള്ളത് പുറത്ത് ചെയ്യിപ്പിക്കുക പാട്ട് വേണമെങ്കിൽ പുറത്ത് പഠിപ്പിക്കുക എന്നിട്ട് ഡാൻസ് പിന്നേ ആ ചെറുക്കൻ ആൺ പിള്ളേരും കൂടെ ആയത്കൊണ്ട് നമുക്ക് അവരെ ഒത്തിരി പഠിപ്പിച്ചില്ലേലും സാരമില്ലല്ലൊ അപ്പോൾ ഡാൻസ് വേണേൽ നമുക്ക് സ്കൂളിൽ കൊടുക്കാം എന്നിട്ട് പാട്ട് അവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പാട്ട് നമുക്ക് അവന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ട്ടമാണെങ്കിൽ പുറത്ത് കൊടുത്ത് പുറത്ത് പോയി വിട്ട് പഠിപ്പിച്ചാൽ മതി അപ്പോൾ അവർ നന്നായിട്ട് പഠിപ്പിക്കും സമയം കൂടുതൽ കിട്ടുമല്ലൊ ഇവിടെ നമുക്ക് കുറച്ച് സമയം അല്ലെ കിട്ടുന്നുള്ളു ആ ആഴ്ച്ചയിൽ ഒരു ദിവസം അല്ലേ ഉള്ളു എക്സ്ട്രാ കരിക്കുലർ അപ്പം സമയം കുറവല്ലേ ആ ഒരു ദിവസത്തെ ഉള്ളത് വേറെ പുറത്ത് നിന്ന് ടീച്ചേർസ് വരും അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ആ ആ അപ്പം നമുക്കവനെ പഠിപ്പിക്കാമെന്നേ അവൻ മിടുക്കനായിക്കോളും അതിന് കുഴപ്പമില്ല അവന് ഭയങ്കര ഇഷ്ടമല്ലേ ഇനി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിക്കോളും ആ ആഹാ ആഹാ ആ ആ ആ ആഹാ ആഹ് ആഹാ ആ ആ അ അ ആ ആ ആ അതെ അതെ അവൻ നല്ല ആക്ടിവാണേ അവനെല്ലാം ഇഷ്ടമാണ് അവൻ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പഠിപ്പിക്കാം ഈ സ്കൂളിൽ പഠി പാഠപുസ്തകം പഠിച്ചാൽ മാത്രം പോരല്ലോ എല്ലാം അവന് എല്ലാ കാര്യങ്ങളും പിള്ളേർക്ക് കിട്ടണ്ടേ

ആ അപ്പം സമയം കൂടുതൽ കിട്ടും അവർക്ക് ഓരോത്തരുടെ ഇപ്പം സാറ്റർഡേ ആണ് അല്ലേങ്കിൽ സൺഡേ പറയുന്നതെങ്കിൽ അപ്പം നമ്മുടെ സമയം സൗകര്യം ഉള്ള സമയം പറഞ്ഞാൽ കൂടുതൽ സമയം കിട്ടും പിന്നെ അവന് അവർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊക്കെ അത് കിട്ടുകയും ചെയ്യുമല്ലോ നമ്മളുടെ സ്കൂളിലേക്കാണ് സ്കൂളിൽ പിള്ളേരും കൂടുതലുണ്ട് ആ പിള്ളേ സമയം കുറവല്ലേ പുറത്താകുമ്പോൾ അവർക്ക് സംഭവം എപ്പം ആണെങ്കിലും സമയം എടുത്ത് അവധി ഉള്ള ദിവസങ്ങൾ ഒക്കെ അവർ പഠിപ്പിക്കുമല്ലൊ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അവനെ പഠിപ്പിക്കാമെന്നേ ആ ഞാനൊന്ന് വിളിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു അവൻ എന്നോടും ഇങ്ങനെ വന്ന് പറയുമായിരുന്നു അവന് പഠിക്കാൻ ഇഷ്ടമാണെന്ന് ഒക്കെ എല്ലാവരും പോകുമ്പോൾ ഒക്കെ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ഇല്ലന്നേ അങ്ങനെ ഒന്നും ഇല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അല്ലാതെ പിന്നേ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലൊ അവരുടെ ഇഷ്ടങ്ങളും നടക്കട്ടെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാമേ ഞാൻ ഇത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇങ്ങനെ അവൻ നല്ലമിടുക്കനല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തോളും പഠിക്കുകയും എല്ലാം ഓക്കെ ആയി പോയിക്കോളും ആ അതെ അ ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ